എനിക്കുള്ളൊരു കഴിവെന്ന് വച്ചാൽ എനിക്ക് ഒരടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും നന്നായിട്ട് ചിത്രം വരയ്ക്കാനും അതുപോലെ സ്റ്റിച്ചെയ്യാനും എനിക്ക് തുണികൾ ചെറിയ കുട്ടി ഉടുപ്പുകളൊക്കെ തൈക്കാനും എനിക്ക് നന്നായിട്ടറിയാം അതെങ്ങനെ വികസിപ്പിച്ചെന്നു ചോദിച്ചാല് ഞാൻ യൂട്യൂബ് നോക്കി ഫോണിൽ യൂട്യൂബ് നോക്കി പഠിച്ച് പുറത്തൊന്നും പഠിക്കാൻ പോകാതെ യൂട്യൂബ് നോക്കി പഠിച്ച് അതിൽ അത് കണ്ട് ആ രീതി അത് കണ്ടുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പൊൾ ചെറിയ കുട്ടിയുടുപ്പുകൾ ചുരിദാര് എന്നിവയൊക്കെ എനിക്ക് തയ്ക്കാൻ അതുപോലെത്തന്നെ ഞാൻ ചെറുതു തൊട്ടുതന്നെ മുന്നിൽ കാണുന്ന സാധാനങ്ങളൊക്കെ വരച്ച് പഠിക്കാൻ തുടങ്ങി എങ്ങനാവെച്ചാ പോയിട്ട് ഇപ്പൊൾ മറ്റുള്ള ആളുടെ മറ്റൊരാളുടെ അടുത്ത പോയി പഠിക്കാതെ തന്നെ സ്വന്തമായി മുന്നിൽ കാണുന്ന അലമാര ജഗ് ഗ്ലാസ്സ് എന്നിവയൊക്കെ നോക്കി അത് നോക്കി വരയ്ക്കാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ ഇപ്പൊ അത്യാവശ്യം വരയ്ജ്ക്കാനും എനിക്കറിയാം ഈ രണ്ട് കഴിവുകളാണ് എനിക്കുള്ളത് അതുപോലെ അത്യാവശ്യം പഠനത്തിലും ഞാൻ പഠിക്കാനും എനിക്ക് അത്യാവശ്യം ബോധവും അതുപോലെത്തന്നെ പഠിക്കാനൊരു മനസും എനിക്കുണ്ട്